ഹലോ നമസ്ക്കാരം ആ ജോണി സാറല്ലേ ആ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം ആ സുഖായിട്ടിരിക്കുന്നോ വസ്തു വസ്തുവിൻ്റെ പരിപാടികളൊക്കെ എങ്ങനൊണ്ട് എന്താണ് സാറേ എന്താണ് സാറേ ഇത് സാറിനോട് ആര് പറഞ്ഞു സാറേ ഒരിക്കലും നമ്മൾ അങ്ങനെ കാരണം ഈ ഏറ്റവും അവസാനല്ലേ ഏറ്റവും പരിചയക്കാരനെ കൂടുതൽ ബന്ധപ്പെടാൻ പറ്റുന്നത് അതുവരത്തേക്കും ഇങ്ങനെ ആൾക്കാർ കയറി ഇറങ്ങി നടക്കും അതൊക്കെ നമ്മൾ തള്ളിക്കളയും നമ്മൾക്ക് അറിയാം സുനിൽ സാറിൻ്റെ കൈയിൽ സ്ഥലമുണ്ടന്നൊക്കെ നമ്മൾക്ക് അറിയാം കുറെ ആൾക്കാർ എന്നോട് പറയുകയും ചെയ്തു നല്ല പ്ലോട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അതെന്താണെന്നു വച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പെർസെൻ്റേജ് നമുക്ക് ഉണ്ടല്ലേ

അതെ അതെ അതെ

സാറേ ഇത് ഇങ്ങനെ ഒന്നുമല്ല സാറിനെ നിങ്ങളെ മൊത്തായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇതിൻ്റെ അകത്ത് വേറെ നമ്മുടെ പരിചയക്കാരായ സുഹൃത്തുക്കളുടെ ആൾക്കാർ വന്നു സാറെ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ വന്നു കാണിക്കുമ്പം നമ്മൾ നിങ്ങളെ മറന്നു പോവുന്നതല്ല നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം അതാണ് നിങ്ങളെ മറന്നു പോവുന്നതല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എന്തായാലും നിങ്ങൾ കാണിക്കുന്ന സ്ഥലം എവിടെ ആണെന്നു വച്ചുകഴിഞ്ഞാാൽ എന്നോടൊന്നു അറിയിപ്പിക്കുക അറിയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചു പോയൊന്നു കാണാം നമുക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ അതിനകത്ത് ചെയ്തു കൊടുക്കാം വിലയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ അതിൻ്റെ അനുസരിച്ചൊക്കെ വില വെക്കാവുള്ളൂ അത് എന്നെ കണ്ടു കൊണ്ട് വില വയ്ക്കരുത് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ പിന്നെ പിന്നെ അത് ശരിയാണ് ഇവരെ ഇവർകൊക്കെ ഒരു പക്ഷെ ഫീൽഡുമായിട്ട് ബന്ധപെട്ടതല്ലേ

അത് ഇല്ല ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിഗണിക്കാം പരിഗണിക്കാം ഏ തീർച്ചയായിട്ടും പരിഗണിക്കാം അത് ആ ഇല്ല ഇല്ല ഇല്ല ഇങ്ങനൊക്കെ പറയുകയാണെങ്കിൽ എത്രയായാലും സാറ് എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മൾക്ക് നമ്മൾക്ക് ഒന്നിച്ചു പോവാം എന്നിട്ട് പോയൊന്നു കണ്ട്

അങ്ങേര് നിങ്ങൾക്ക് പണി തന്നോ എന്തോ അസുഖമായിട്ട് കിടപ്പാണന്നൊക്കെ പറയുന്നത് കേട്ടു